ഇന്ത്യൻ ശാസ്ത്രജ്ഞരെക്കുറിച്ചാണ് പറയേണ്ടത് ഇന്ത്യയില് ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് വളരെ നല്ല ഉന്നതിയിലെത്തി നൊബേൽ സമ്മാനമൊക്കെ നേടി ഒരുപാട് സംഭാവനകൾ ഇന്ത്യക്കും ലോകത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലകളിലും ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാര് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ജഗദിഷ് ചന്ദ്ര ബോസ് എന്നൊരു പ്രധാനപ്പെട്ടൊരു ശാസ്ത്രജ്ഞനാണ് ഈ ഇവരുടെ മേഖല റേഡിയോ സയൻസ് ആയിരുന്നു ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ സയൻസ് എന്ന പേരിലും ജഗദിഷ് ചന്ദ്ര ബോസ് അറിയപ്പെടുന്നു ആയിരത്തിയെണ്ണൂറ്റി അമ്പത്തിയെട്ട് ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കാലയളവിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം ഒരുപാട് സംഭാവനകൾ റേഡിയോ മേഖലയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് മറ്റൊരാളാണ് ഡോക്ടർ വിശ്വേഷരയ്യ അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ എൻജിനീയറിങ് എന്ജിനീയറിങ് മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ നൽകിയയാളാണ് ഡോക്ടർ വിശ്വേഷരയ്യ അവരുടെ ജീവിതകാലം ആയിരത്തിയെണ്ണൂറ്റി അറുപത്തിയൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി രണ്ടായിരുന്നു അവരുടെ മദ്രാസിലായിരുന്നു അവരുടെ സ്പേസ് മറ്റൊരു പ്രധാന ശാസ്ത്രജ്ഞനാണ് സി വി രാമന് അതായത് ചന്ദ്രശേഖര വെങ്കിട്ടരാമന് ചന്ദ്രശേഖരെ വെങ്കിട്ടരാമൻ അവരുടെ രാമൻ ഇഫക്റ്റ് അതായത് ഓരോ പ്രോഡക്റ്റിലും പദാർത്ഥത്തിലും കൊണ്ടുവന്നു പിന്നെ മറ്റൊരാളാണ് എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമെന്ന് പറഞ്ഞാല് അത് ഇന്ത്യയുടെ മിസൈൽ മാനാണ് എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ ആണവമേഖലയിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയയാളാണ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന് നോബല് സമ്മാനമൊക്കെ ലഭിച്ചിട്ടുണ്ട് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് നാസയുമായി ബന്ധപ്പെട്ടു നമുക്കൊരുപാട് പ്രവർത്തിച്ചയാളാണ് എ പി ജെ അബ്ദുൽ കലാം അബ്ദുൽ കലാം തൻ്റെ ജീവിതം മുഴുവനും കുടുംബം പോലുമില്ലാതെ ആ ഒരു മേഖലയിലേക്ക് ഉഴിഞ്ഞുവെച്ച വ്യക്തിയാണ് പിന്നെ മാത്സ് അതായത് കണക്കിന്റെ മേഖലയിൽ വിജയിച്ച ഒരാളാണ് രാമാനുജൻ ശ്രീനിവാസ രാമാനുജൻ മാത്തമാറ്റീഷ്യനാണ് അത് മാത്തമാറ്റിക്കൽ ഫീൽഡിലേക്ക് ഒരുപാട് സംഭാവനകൾ രാമാനുജൻ നൽകിയിട്ടുണ്ട് രാമാനുജൻ അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ തിയറികൾ അതായത് ഫ്രാക്ഷനില് അതുപോലെ ഓരോ മാത്തമാറ്റിക്കൽ തിയറീസും അദ്ദേഹത്തിൻ്റേതായി ഒരുപാട് അറിയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹവും ഒരു നോബൽ പ്രൈസ് ജേതാവാണ് താങ്ക് യൂ